ഈ രണ്ടായിരത്തി പതിനെട്ട് ആ പ്രളയം കഴിഞ്ഞതിൽ പിന്നെ നമ്മുടെ ഈ കാലാവസ്ഥയിലൊത്തിരി മാറ്റം വന്നുപോയി ശരിക്കും പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥയുടെ മണ്ണിൻ്റെ ഘടകം തന്നെ മാറിപ്പോയിരിക്കുകയാണ് അത് ഇപ്പോൾ കൃഷി ചെയ്തു കഴിയുമ്പോഴത്തേക്ക് അതിന് പൂർണ്ണമായൊരു വിളവുണ്ടായിരുന്നില്ല അതുപോലെതന്നെ ഈ കാലാവസ്ഥയുടെ ഈ പ്രളയം വന്നു മണ്ണിൻ്റെ ഘടകം മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മണ്ണിൽ വേണ്ടതായ പിന്നെ ഘടകങ്ങൾ ജീവാണുക്കൾ അതിൽ വേണ്ട ഒരു കൃഷിയ്ക്ക് വേണ്ടതായ ജീവൻ വേണ്ടതായ അതിന് പോഷകാഹാരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയൊരാ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ധാതു ലവണങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കൃഷി നമുക്ക് നന്നായിട്ട് ഈ കുടിക്കൃഷി ചെയ്താലും കൊള്ളാം ഏലക്കൃഷി ചെയ്താലും കൊള്ളാം അതുപോലെതന്നെ ജാതിയുണ്ട് ഗ്രാമ്പൂവുണ്ട് കാപ്പിയുണ്ട് ഇനി അതല്ലാത്തതുകൊണ്ട് ഈ ചെടികളാണെങ്കിൽ നട്ടാൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഘടകങ്ങളും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇതിനെല്ലാം വേരു നഷ്ടപ്പെട്ടുകൊണ്ട് പോയിരിക്കുന്നു അതുപോലെതന്നെ കീടനാശിനി അതുപോലെതന്നെ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങൾ ഭയങ്കരമായിട്ട് കടന്നു കൂടുകയാണ് അതിനെ പ്രതിരോധിക്കുവാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ പിന്നെ കാലാവസ്ഥയ്ക്കിത്തിരി മാറ്റം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാലാവസ്ഥ മാറിക്കോണ്ടിരിക്കുകയാണ് അതായി ഒരു ദിവസം നല്ലത് തെളിഞ്ഞ അന്തരീക്ഷമാണ് പിറ്റേ ദിവസം ആ തെളിഞ്ഞ ഒരന്തരീക്ഷമായിരിക്കും ഒന്നുകിൽ മൂടിക്കെട്ടി കിടക്കും അല്ലെങ്കിൽ അതിശക്തമായ തണുപ്പായിരിക്കും അല്ലെങ്കിൽ അതിശക്തമായ മഞ്ഞായിരിക്കും അങ്ങനെയാണ് കാലാവസ്ഥയുടെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കൃഷി ചെയ്ത് ഒരു കൃഷിയെ ആശ്രയിച്ചു ആ കൃഷിയിൽ തന്നെ ആശ്രയിച്ചു പോവുമ്പം അതിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുമാന മാർഗ്ഗങ്ങളുണ്ടാകുന്നുണ്ട് അതിനുവേണ്ട ചിലവുകൾ വളരെ ഏറിക്കൊണ്ടിരിക്കുകയാണ് അവയ്ക്ക് ഇപ്പോൾ വേണ്ടി കൃഷിയ്ക്ക് വേണ്ട ജൈവ ഘടകങ്ങളെല്ലാം ജീവ ഘടകങ്ങളെല്ലാം കൊടുക്കണമെങ്കിൽ അത് നമ്മൾ മേടിച്ചു കൊണ്ടൊരു ചെടിയുടെ ചുവട്ടിൽ ഇട്ടു അതിനുവേണ്ട പരിപാലനം കൊടുത്തു പോയാൽ മാത്രമേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുത്തുള്ളൂ എന്നുള്ളത് എന്നാലും അതിൻ്റെ കായ് ഫലങ്ങൾ നമ്മൾ കൊടുക്കുന്ന ആ വളങ്ങളുടെ മരുന്നിൻ്റെയൊക്കെ ഇതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വിളവെടുപ്പു നടത്താൻ പറ്റുളളൂ

ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാരന് താങ്ങാൻ പറ്റുന്നില്ലാത്തൊരു അവസ്ഥ ഇപ്പം പോയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു നല്ല ഇതിപ്പം ഉണ്ട് നല്ല അതായത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഭൂമിയുടെ എല്ലാ ധാതു ലവണങ്ങളും എന്നു പ്രത്യേകിച്ചെന്നു പറയുമ്പോഴത്തേക്ക് ഓരോ പ്രദേശത്തും ഓരോ കൃഷിയാണ് കൂടുതൽ ഈ ഉദയഗിരി പ്രദേശം പോലെ അല്ലെങ്കിൽ തോപ്രാംകുടി പ്രദേശം പോലെ അല്ലെങ്കിൽ പുഷ്പഗിരി പ്രദേശങ്ങളോ അതിലേക്ക് നല്ല പ്രദേശമാണ് കൃഷി ചെയ്യുവാൻ അതുപോലെതന്നെ ഓ ശരിക്കും നല്ല ചെരിഞ്ഞ് ചെങ്കുത്തായിട്ട് കിടക്കുന്ന ഭൂമികൾ ഒരു ഭൂപ്രകൃതിയിലുണ്ട് ആ പ്രദേശത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വേറെ കൃഷികൾ കാപ്പി പൊടി ഉള്ള കൃഷികളൊക്കെ ചെയ്യുകയാണ് ശെരിക്കും പറഞ്ഞാൽ തെങ്ങ് നല്ലൊരു വിളവ് ലഭിക്കുന്നില്ല തെങ്ങ് വെച്ചു കഴിഞ്ഞാൽ അത് വളർത്തിക്കൊണ്ടു വന്നാൽ ശരിക്കും പറഞ്ഞാൽ തേങ്ങ ശരിക്കും അതിന് നല്ലൊരു വിള ലഭിക്കാതെ വരുന്നു കൃഷിക്കാർ അതുപോലെ ഈ ഭൂമിയുടെ ഘടന അനുസരിച്ച് കൃഷി ചെയ്യുകയാണ് ഈ കാലമെത്രയും കൃഷിക്കാരൻ പഠിച്ചിട്ടില്ല ഞാനുൾപ്പെടെ പഠിച്ചിട്ടില്ലെന്നുള്ള കേട്ടോ അത് പിന്നെ ഓരോരോ ഭാഗത്തും ഓരോ കൃഷികൾ സുലഭമായിട്ടുണ്ടാവും തെങ്ങിനു വേണ്ട ധാതു ലവണങ്ങളുള്ള ഭൂപ്രകൃതിയുണ്ട് അതുപോലെതന്നെ കുട്ടിയ്ക്ക് പറ്റുന്ന ഭൂപ്രകൃതി കേരളത്തിനു പറ്റുന്ന ഭൂപ്രകൃതി അവ ചൂട് കൂടിയിടത്ത് ഏലം എന്നു പറഞ്ഞ് പിടിക്കത്തില്ല ആവശ്യമുള്ള മഴയും ചൂടും വെയിലുമൊക്കെ കിട്ടിയാൽ മാത്രമേ ആദായ കുരുമുളക് ചെടി വളർത്തിക്കൊണ്ട് വരാനും അതിൽ നടയെടുക്കാനും പറ്റത്തുള്ളു അതുപോലെതന്നെ തെങ്ങ് കാറ്റടിക്കുന്ന പ്രദേശമാണെങ്കിൽ അതു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നു ശരിക്കും വളർന്നതോ ഫുൾ വളർച്ച ഉണ്ടായിക്കൊണ്ട് അതിനു ശരിക്കും കായ്ഫലം പുറപ്പെടുവിക്കാം പറ്റത്തില്ല എന്നുമുണ്ട് ഇങ്ങനെയുള്ള ഓരോ ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള കൃഷിക്ക് ഭൂപകൃതിയുള്ള ഭൂപ്രദേശങ്ങളുണ്ടെന്നുള്ളത് വിളകളെ ബാധിക്കുന്നു പറഞ്ഞാൽ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ വിളകളെ ശരിക്കും ബാധിക്കുന്നുണ്ട് അത് ആ വിളകളെ ബാധിക്കുന്നത് കലാവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറഞ്ഞ കാലയളവായിട്ട് കാലാവസ്ഥ ഒത്തിരി മാറിപ്പോയി അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കാലാവസ്ഥയ്ക്ക് അനുകൂലമായൊരു കൃഷി നടപ്പാക്കിക്കൊണ്ടു വരാനും അപ്പോൾ പറ്റാതെ വരുന്നു പറ്റാതെ വന്നു കൊണ്ടിരിക്കുകയാണ്